ഇപ്പോഴൊരുപാട് ജനങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് പോകാനും അതോടോപ്പംതന്നെ യാത്രയ്ക്കായ്ട്ടൊക്കെ ഒരുപാട് പേര് ആഗ്രഹിച്ച് ഒരുപാട് നാളത്തെ പ്ലാന്കൾക്ക് ശേഷം അവർ യാത്രയ്ക്കൊക്കെ തയ്യാറെടുക്കുന്നുണ്ട് അങ്ങനെ തയ്യാറെടുക്കുന്ന സമയത്ത് അവർ പ്രധാനമായും അവർ ശ്രദ്ധിക്കുന്ന ഒരുകൂട്ടം കാര്യങ്ങൾ ടിക്കറ്റ് ബുക്കിങ് ഹോട്ടല് ബുക്കിങ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അതിനൊക്കെയായിട്ട് ഇപ്പോൾത്തന്നെ നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് തന്നെ ഒരുപാട് തരത്തിലുള്ള സാങ്കേതികമായ ഒരു ഓൺലൈൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമ്കൾ ഒരുപാട് അനവധിയുണ്ട് അതിനകത്ത് പ്രധാനമായും നിരവധി ആപ്പ്കൾ വെബ്സൈറ്റ്കൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെയുണ്ട് അതിനകത്ത് വേറെ വേറൊരുപാട് തരത്തിലുള്ള ആപ്പ്കളാണെങ്കിലും വെബ്സൈറ്റ്കളാണെങ്കിലും ഇന്നത്തെ തരത്തിലുള്ള ഹോട്ടൽ ബുക്കിങ്ങിനാണെങ്കിൽ ടിക്കറ്റ് ബുക്കിങ്ങിലൊക്കെയാണെങ്കിലുണ്ട് അതിപ്പം ബസ്സിനാണെങ്കിലും ട്രെയ്നാണെങ്കിലും ഫ്ലൈറ്റിനാണെങ്കിലും അത് മൂന്ന് തരത്തിലുള്ള യാത്രയ്ക്കും അതൊരു വലിയ ഒരു ഒരുപാട് തരത്തിലുള്ള ആപ്പ്കൾ സൈറ്റ്കളൊക്കെ നമുക്കിപ്പോൾ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിനകത്ത് ഇപ്പം ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഒക്കെയാണ് കുറച്ചധികം ബുദ്ധിമുട്ടുള്ളത് ബാക്കിയെല്ലാം വളരെയധികം എളുപ്പത്തിൽത്തന്നെ അനായാസമായി നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് പക്ഷെ പല സമയങ്ങളിലും പല സ്ഥലങ്ങളിലും ബുക്ക് ചെയ്യാനായിട്ട് വളരെയും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അത് അത് അവിടുത്തെ ഇൻറ്റർനെറ്റിൻ്റെ സഫ്യലത ഇൻറ്റർനെറ്റ് ഇല്ലായ്മ അത് ഇപ്പോൾ റേഞ്ച് ഇല്ലായ്മ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അതിനകത്ത് അങ്ങനെത്തെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അവർ നേരിടുമ്പോൾ ജനങ്ങളൊക്കെയും സാങ്കേതികമായ വിദ്യകളിൽ നിന്നൊക്കെ വിട്ട് അവർ മാന്വലി പോയി ഓരോ സ്ഥലങ്ങളിൽ നേരിട്ട് പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊക്കെയായിട്ട് ശ്രമിക്കുന്നുണ്ട് പല സമയത്തും പലരുടെയും അക്കൗണ്ടുകളിൽനിന്ന് പൈസ പൈസ മാത്രം പോയിട്ട് ടിക്കറ്റ് ബുക്ക് ആവാത്ത അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് അത്കൊണ്ട് അങ്ങനെത്തെ ഉള്ള സമയങ്ങളിലൊക്കെയും സാഹചര്യങ്ങളിലും പലരും സാങ്കേതികവിദ്യകൾക്കപ്പുറം വളരെ മാനുഷികമായുള്ള സഹായങ്ങളവർ നേടുന്നുണ്ട് എന്നാൽ ഈ സാങ്കേതികവിദ്യകളൊക്കെ എളുപ്പകരമായിത്തീരാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇൻറ്റർനെറ്റ് തന്നെയാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ആണെങ്കിലും ഫ്രീയായിട്ട് വൈഫൈ ലഭിക്കുന്നു അതോടൊപ്പംതന്നെ ഗവൺമെൻറ്റിൻറ്റെയാണെങ്കിൽ ഒരുപാട് ഇൻറ്റർനെറ്റ് സൗകര്യങ്ങൾ ലഭിക്കുന്നു അതിൽ അത് അത് വഴി ഒരുപാട് തരത്തിലുള്ള വളരെയധികം എളുപ്പത്തിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഹോട്ടല് ബുക്ക് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് അതോടപ്പംതന്നെ ഇതുപോലെ യാത്രക്ക് പോകുമ്പോൾ ട്രെയ്നിലാണെങ്കിൽ പുതുക്കിയ യാത്രാസമയങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം നമ്പറ്കൾ സ്റ്റേഷന് ഏത് ഏത് ട്രെയ്ൻ ട്രെയ്ൻ നമ്പറ്കൾ എവിടെ എത്തി എന്നുള്ളതൊക്കെയും നമുക്ക് അനായാസമായി വളരെയധികം എളുപ്പത്തിൽ നമുക്ക് ഈ സാങ്കേതികവിദ്യ വഴി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെയൊക്കെ നമുക്കൊരുപാട് ഗതാഗതം നമുക്ക് എളുപ്പമാകുന്ന് ഇപ്പോൾ അത് ട്രെയ്ന് എവ്ടെത്തി ട്രെയിന് ഇപ്പോൾ താമസിക്കുന്നുണ്ടോ ഡിലെയാണോ അതനുസരിച്ച് നമുക്ക് വീട്ടിൽ നിന്നിറങ്ങാനും അതോടൊപ്പംതന്നെ ആ ട്രെയിനിനി അഥവാ നേരത്തെയാണെങ്കിൽ അതനുസരിച്ച് നേരത്തെ നമുക്ക് കരുതലോടെ നമുക്ക് നിൽക്കാനൊക്കെയും കഴിയുന്നുണ്ട് അതൊക്കെ ഈ സാങ്കതിക സാങ്കേതികവിദ്യ വളരെയധികം എളുപ്പമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓരോ ദിവസം കഴിയുംതോറും അത് അപ്ഡേറ്റഡ് അപ്പ് റ്റു ഡേറ്റ് ആയിട്ട് അതിൻ്റെ കരുതലുകൾ മുമ്പോട്ട് പോകുന്നു അത് വളരെയധിക അനായാസമായി ഈ ലോകത്തുള്ളവർക്ക് പലർക്കും കുഞ്ഞ് കുട്ടി ആവാതവൃത്തങ്ങൾക്ക് അത് വളരെയധികം എളുപ്പമായ്ത്തീരുകയാണ് വളരെയധികം മനോഹരമായി അനായാസമായി എളുപ്പത്തിൽ ഈ സാങ്കേതികവിദ്യ വഴി അവർക്ക് ഉപയോഗിക്കാൻ പറ്റി എന്നാൽ മുൻകാലങ്ങൾ അങ്ങനെ അങ്ങനെ അല്ലായിരുന്നു എല്ലാം മാനുഷികമായിത്തന്നെ മാന്വലിപ്പോയി എല്ലാം ചെയ്യണമായിരുന്നു എന്നാലിപ്പം അതിൻ്റെ ആവശ്യമില്ല വിരൽത്തുമ്പിൽ നമുക്ക് എല്ലാം റെഡിയാകാൻ കഴിയുന്നു ഈ ലോകത്തിൽ ഒരു ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ നമുക്ക് പോകുവാൻ വിരൽത്തുമ്പിലൂടെ നമുക്ക് ടിക്കറ്റ് എടുത്ത് നമുക്ക് പോകാൻ കഴിയുന്നു ഇതൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയും ഈ സാങ്കേതി പുതിയ സാങ്കേതിക വിദ്യയിലൂടെയും ആണ് ഇതൊക്കെ എളുപ്പമായിത്തീർന്നുകൊണ്ടിരിക്കുന്നത് അത് അതിലൂടെ ജനങ്ങളിലേക്ക് വളരെയധികം ആ ഒരു ഒരു ചെറിയ തോതിൽ അവർക്കൊരു മടിയും ഉണ്ടാവുകയാണ് എന്നാൽ അതിനപ്പുറം ഒരു വളരെയധികം എളുപ്പമായിത്തീരുകയാണ് അവരുടെ സമയം സമയത്ത് സമയം വെറുതെ അതിന് വേണ്ടി മാറ്റി വെക്കാൻ കളയേണ്ട പകരം ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് മാക്സിമം ഇതിനുവേണ്ടി മാറ്റിവെച്ച് കഴിഞ്ഞാൽത്തന്നെ അതിനുള്ളൊരു പരിഹാരം ലഭിക്കുകയാണ് മറ്റേത് ഒരു ദിവസത്തിന് പകുതി തന്നെ ആ ഒരു ടിക്കറ്റ് എടുക്കാൻ തന്നെ പൊവേണ്ടിവരും ആ പക്ഷെ ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല വിരൽത്തുമ്പിൽത്തന്നെ നമുക്കെല്ലാം ലഭിക്കുന്നു എല്ലാത്തിനുമുള്ള മാർഗ്ഗങ്ങളും അതിനകത്തുതന്നെ ലഭിക്കുന്നു അത് ജനങ്ങളിലേക്ക് വളരെയധികം എളുപ്പത്തിന് കാരണമായിത്തീരുന്നു എൻ്റെ എൻ്റെ അനുഭവത്തിൽനിന്ന് പറയുകയാണെങ്കിൽ എനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ള് ആണ് പ്രത്യേകിച്ച് എൻ്റെ ഭവനത്തിൽനിന്ന് ഞാൻ കോളേജിലേക്കൊക്കെ യാത്രക്കായിട്ട് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യാറുള്ളത് കെ എസ് ആർ ടി സിയുടെ എൻ്റെ കെ എസ് ആർ ടി സി എന്നുള്ള ഒരു ആപ്പ് വഴിയാണ് ഞാൻ ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാറുള്ളത് അത് വഴിയെനിക്ക് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ടിക്കറ്റ് യാത്രാടിക്കറ്റ് അവൈലബിൾ ആണെന്നും എത്ര സീറ്റ് ഫില്ല് ആണെന്നും എത്ര രൂപയാണെന്നും എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ജേണി എത്ര മണിക്ക് അവസാനിക്കും എന്നുള്ളതും വ്യക്തമായ വ്യക്തമായ ഡീറ്റെയ്ൽസ് നമുക്ക് അതിനകത്തുകൂടെ ലഭിക്കുന്നു അത് വഴി വളരെയധികം അനായാസമായി നമുക്ക് യാത്ര ചെയ്യാനും ആരുടെയും സഹായമില്ലാതെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നു ഒരു മനുഷ്യൻ ഒരു ഇൻഡിപ്പെൻഡെൻറ്റ് ആകാൻ കഴിയുന്നതിന് ഒരു വലിയ ഒരു പ്രാഥമിക ഒരു ഘടകം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെ വഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിലുപരി ഒരുപാട് ജനങ്ങളിലേക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വളരുന്നതിലൂടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വളരെയധികം എല്ലാവർക്കും ഈസിയായിക്കൊണ്ടിരിക്കുകയാണ് സ്മാർട്ട്ഫോണിൻ്റെ ഈ കാലഘട്ടത്ത് ഈ ഇൻറ്റർനെറ്റിൻ്റെ പുതിയ യുഗത്തിൽ ഇത് ഈ ഇൻറ്റർനെറ്റ് മൂലം ഇങ്ങനെയൊരുപാട് ഗുണങ്ങളുണ്ട് അതൊരുപാട് പുതിയ അനുഭവങ്ങൾ ആളുകളിലേക്കെത്തുന്നു അതോടൊപ്പംതന്നെ ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കാൻ കഴിയുന്നു ഇതൊക്കെയും ഇൻറ്റർനെറ്റിൻ്റെ അല്ലെങ്കിൽ ഈ നമ്മുടെ യാത്രയ്ക്ക് തന്നെ വളരെയധികം എളുപ്പമായിത്തീരുകയാണ് എളുപ്പത്തിന് തന്നെ ഈ ഇൻറ്റർനെറ്റ് ഉപയോഗിക്കുന്നതിലൂടെ തന്നെയാണ് നമുക്ക് മിക്കതും മിക്കയുള്ളവർക്കും വളരെയധികം എളുപ്പത്തോടെത്തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ അവർക്ക് ചെയ്യാൻ കഴിയുന്നു അതിലൂടെ ഈയൊരു ടിക്കറ്റ് ബുക്കിങ്ങ് ആവട്ടെ ഹോട്ടൽ ബുക്കിങ്ങ് ആവട്ടെ പുതുക്കിയ യാത്രാസമയമാവട്ടെ പ്ലാറ്റ്ഫോം നമ്പറ്കള് സ്റ്റേഷൻ അല്ലെങ്കിൽ ബസ്റ്റ് പ്പോട്ട് ലൊക്കേഷന്കള് തുടങ്ങിയവയുടെ കാര്യത്തിൽ ഗതാഗതം വളരെയധികം എളുപ്പമാകുന്നതിനൊക്കെ സാങ്കേതികവിദ്യ വളരെയധികം സഹായകമായമായിത്തീരുകയാണ്